മാനസിക ആരോഗ്യം വളരെ അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മാനസികാരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം നൽകപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ജീവിക്കുന്നത് കൃത്യമായും മാനസികാരോഗ്യത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോഴും വിനോദങ്ങളെ വിനോദങ്ങളും വിനോദങ്ങൾ മനുഷ്യന് എന്ത് കൊണ്ട് ആവശ്യമാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴും ഇത് ഒരു ഒരു മുന്തിയ സമൂഹത്തിന് അല്ലെങ്കിൽ പണം ഉള്ളൊരു സമൂഹത്തിന് മാത്രം ആക്സസബിളായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് മാത്രം ലഭ്യമാകുന്ന ഒന്നായി മാനസിക ഉല്ലാസം അല്ലെങ്കിൽ വിനോദം എന്നിങ്ങനെ ഉള്ള കാര്യങ്ങൾ പരിമിതപ്പെടുന്ന ഒരു അവസ്ഥ ഇപ്പോഴത്തെ സമൂഹത്തിനുണ്ട് അന്നേരം ആ സമയങ്ങളിൽ അ ആ നേരങ്ങളിൽ നഗരപ്രദേശങ്ങളുടെ അത്രയും വികസിതമല്ലാത്ത ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ മനസിക ആരോഗ്യത്തിന് മാനസിക ആരോഗ്യം അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഉള്ളത് ചർച്ച അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒന്നാണ് ആ സമയങ്ങളിലാണ് ഗ്രാമപ്രദേശത്തെ മാനസിക ആരോഗ്യത്തിൻ്റെയും വിനോദത്തിൻ്റെയും ഒരു അതിനുള്ളൊരു വഴിയായി ഈ കളികൾ നാടൻ കളികളൊക്കെ വരുന്നത് നാടൻ കളികളൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് ഈ നാടന് കളികളെന്ന് പറയുമ്പം തന്നെ അതൊരുപാടുണ്ട് ഗ്രാമ പ്രദേശത്ത് നമ്മൾ ഒരു ഗ്രാമപ്രദേശത്ത് കൂടെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും കുറേ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് ഫുട്ബോള് കളിക്കുന്നു അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നു അല്ലെങ്കിൽ കുറേ പേര് പല ഈ നാടൻ കളികൾ അല്ലെങ്കിൽ പുല്ലാങ്കുഴി കള്ളനും പോലീസും കക്ക് കളിക്കുന്നു കല്ല് കളിക്കുന്നു അല്ലെങ്കിൽ വേനലവധി കാലങ്ങളിൽ ഒട്ടനേകം കളികളിലേർപ്പെടുന്നു മണ്ണപ്പം ചുട്ട് കളിക്കുന്നു അങ്ങനെ മിക്കവാറിനം കാര്യങ്ങളും അല്ലെങ്കില് മിക്കവാറും ഇങ്ങനെ ഉള്ള കളികളും ഈ സംഘം സംഘമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത് ഈ സംഘം സംഘമായിട്ട് ചേർന്നുള്ള ഇങ്ങനുള്ള പ്രവർത്തങ്ങൾ ഗ്രാമപ്രദേശത്തെ ജനങ്ങൾ തമ്മിൽ തമ്മിലുള്ള അവരുടെ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ പരസ്പര സഹകരണം അവരുടെ പരസ്പരമുള്ള വിവരശേഖരണം അല്ലെങ്കിൽ വിവരങ്ങളുടെ കൈമാറ്റം അങ്ങനുള്ള ഒരുപാട് കാര്യങ്ങളത് പോലെ അവരുടെ മാനസിക ആരോഗ്യം അവരുടെ കൂട്ടം കൂടൽ അങ്ങനുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് ഉപകാരം അല്ലെങ്കിൽ ഒരുപാട് അങ്ങനുള്ള കാര്യങ്ങൾ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നാണ് ഈ ഗ്രാമപ്രദേശത്ത് ഇങ്ങനെ ഇത്തരത്തിലുള്ള കളികൾ എന്ന് പറയുന്നത് പക്ഷേ വേറെ ഒരു നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴും ഈ ഇതിൽ ഉൾപ്പെടുന്ന സമൂഹങ്ങൾ ഏതൊക്കെയാണെന്ന് ചിന്തിക്കണം ഇപ്പോഴും ഗ്രാമപ്രദേശങ്ങളിൽ നഗരപ്രദേശങ്ങളിൽ നോക്കുമ്പോഴ്ത്തേക്കും സ്ത്രീകളും കുട്ടികളും അല്ലെങ്കിൽ വയസ്സായ ആളുകളുമെല്ലാം എല്ലാവർക്കും ഇങ്ങനൊരു സംഘം ചേർന്ന പൈസ മുടക്കിയാൽ ഇങ്ങനുള്ള കാര്യങ്ങൾ കളികളിലേർപ്പെടാനുള്ള അവസരമുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഗ്രാമപ്രദേശത്ത് ഇപ്പോഴും ഇതൊരു ചെറിയ സമൂഹത്തിലേക്ക് ഒതുങ്ങി നിൽക്കുന്നുണ്ടതായത് ആൺ ആൺകുട്ടികൾ മാത്രം സംഘം ചേർന്നുള്ള കളിക്കാൻ പോകുന്നു പെൺകുട്ടികൾ വീട്ടിനകത്തുള്ള എന്തെങ്കിലും കളികൾ കളിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് തൊട്ടടുത്ത വീട്ടിലുള്ള ആരോടെങ്കിലും ചേർന്ന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ വൃദ്ധജനങ്ങൾ ഇപ്പോഴും ഗ്രാമപ്രദേശത്തിൽ നിന്ന് വൃദ്ധജനങ്ങളെന്ന് പറയുമ്പോൾ ഒരു ഐസൊലേറ്റഡ് പോപ്പുലേഷനായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും കാരണം അവർക്ക് ഇപ്പോഴും ഇങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് അധികം അവർക്ക് അതിലധികം സ്കോപ്പോ ഓപ്പർച്യുണിറ്റിസ് ഒന്നും കിട്ടുന്നില്ല അവർക്ക് വാർദ്ധക്യമായാൽ വീട്ടിലിരിക്കുക എന്നുള്ളൊരു മാർഗ്ഗം തന്നെ ഇപ്പോഴും ഉള്ളു അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികളിലേർപ്പെടുക എന്നുള്ള മാർഗ്ഗം മാത്രമേ ഉള്ളു അല്ലാതെ ഇത്തരം വിനോദങ്ങളിലേർപ്പെടുകയെന്ന് ഉള്ളത് ഒരു യുവാക്കളായിട്ടുള്ള പുരുഷന്മാരുടെ അല്ലെങ്കിൽ ആൺകുട്ടികളുടെ ഒരു കൊട്ടകയായിട്ടിപ്പോഴും ഒതുങ്ങി നിൽക്കുന്നൊരു അവസ്ഥ അതിപ്പോഴും ഉണ്ട് എങ്കിൽ പോലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ജനങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് കുറച്ചുകൂടി കാര്യങ്ങൾ ഇബ്രൂസീവായിട്ട് വന്ന് കഴിഞ്ഞ് ഗ്രാമപ്രദേശത്തധികം വികസനം ഗ്രാമപ്രദേശങ്ങൾ നഗരപ്രദേശത്തിനെ ആ സം വച്ച് നോക്കുമ്പോൾ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ തീർച്ചയായും വികസനങ്ങൾ കുറവായിരിക്കും കാര്യങ്ങളുടെ വളർച്ചകൾ എത്രത്തോളം കാണത്തില്ല അങ്ങനുള്ള അങ്ങനെയുള്ള രീതിയിൽ ആളുകളുടെ മാനസിക ആരോഗ്യത്തിനും അത് വളരെ അധികം ബാധിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് കുറച്ച് കൂടി വ്യാപകമായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇങ്ങനുള്ള കളികളും കാര്യങ്ങളുമൊക്കെ വളരെയധികം ആളുകളുടെ മാനസിക ആരോഗ്യം നിലനിർത്താനും ഗ്രാമപ്രദേശങ്ങളിലെ ഒരു ഇത് കാര്യങ്ങളൊക്കെ നിലനിർത്താനൊക്കെ വളരെ നല്ല ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് കൃത്യമായും നമ്മൾ ഇങ്ങനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം